ഹലോ സാർ എനിക്ക് വയനാടിൽ നിന്ന് മൂന്നാറ് വരെ ഒരു ട്രിപ്പ് പോകാനൊരു ആഗ്രഹുണ്ടായിരുന്നു എങ്ങനെ ആണ് അതിൻ്റെ പൈസയും ചിലവുകളൊക്കെ വയനാട് മാനന്തവാടി വന്ന് പിക്ക് അപ്പ് ചെയ്താൽ അത്രയും നല്ലത് മൂന്നാറ് മൂന്നാറ് ഞാനും എൻ്റ ഒരു സുഹൃത്തും മാത്രം ആ ഒരു ചെറിയൊരു ബസ് ബസ്സോ എന്തു വണ്ടി ആണേലും കുഴപ്പമില്ല ആ

ഒരു പത്തു മുപ്പതാൾക്കാർക്ക് പോകാൻ നിങ്ങളുടെ കയ്യിൽ വണ്ടി ഉണ്ടോ എന്നാൽ അതാക്കിക്കൊ അതായിരിക്കും നാട്ടുകാർ കുറച്ച് പേരുണ്ട് ആ മൂന്നാറിലൊരു കല്യാണമുണ്ട് മൂന്നാറിലൊരു കല്യാണമുണ്ട് അപ്പോൾ ഫാമിലിനെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ആ രണ്ട് നിങ്ങളുടെ തന്നെ മതി പുറത്ത് നിന്നതിന് കാട്ടിൽ നല്ലത് നിങ്ങളുടെ അല്ലേ മുപ്പത് ആൾ മുപ്പത് ആൾ വയസ്സായ ആൾക്കാരും ഉണ്ട് കേട്ടോ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അവിടെ എത്തിയാൽ മതി കുറച്ച് കറങ്ങിയിട്ടൊക്കെ യെസ് യെസ്

ഒരാൾക്കോ കുറച്ചു ഡിസ്കൌണ്ട് ഒക്കെ തരുമോ മുപ്പത് പേരൊക്കെ ഇല്ലേ ആ ആയിക്കോട്ടെ താങ്ക്യൂ സാറെ നിങ്ങൾ വിളിച്ചാൽ തി